ഹലോ സ്വിഗ്ഗിയിൽ നിന്ന് ഞാനാ ഭക്ഷണം ഓഡറെയ്തിരുന്നേ നിങ്ങളെവിടം വരെയായി ആ ഇപ്പോള് വരുമോ ഞാന് ഒരു രണ്ട് ബർഗറാണ് ഓഡര് ചെയ്തിരുന്നത് ഇവിടെല്ലാവരും കാത്തിരിക്കുകയാണ് എപ്പോള് വരുമെന്നൊന്നറിയാന് വേണ്ടി വിളിക്കുകയാണ് നിങ്ങള് ഇപ്പോള് എവിടായി എന്നറിയാണെങ്കില് നമുക്കതനുസരിച്ച് ലൊക്കേഷൻ പറഞ്ഞു തരാമായിരുന്നു എന്നെ വിളിച്ചില്ല അതിന് വേണ്ടിയാണ് അത്യാവശ്യായിട്ട് ഞങ്ങള്ക്ക് പുറത്ത് പോകണ്ട ആവശ്യമുണ്ട് ഇത് ഭക്ഷണം കഴിച്ചിട്ട് വേണം പുറത്ത് പോകാന് അല്ല എത്ര സമയം എടുക്കുമെന്നൊന്ന് പറയണം നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ നമ്പർ വഴി വിളിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഇപ്പോള് നിങ്ങളെവിടുണ്ട് അതൊന്നറിയാന് പറ്റുമോ എന്നുള്ളത് പറയണം കേട്ടോ അത് ഭക്ഷണം കിട്ടിയിട്ട് വേണം ഞങ്ങള്ക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളി പോവാനുണ്ട് ആ അവിടെ ചെന്ന് താമസിച്ചാല് പ്രശ്നമാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത അടുത്തായെങ്കിലൊന്ന് പറയണേ ഇത് ഞാനിത് മെസ്സേജായിട്ടാണിടുന്നത് നിങ്ങളെവിടായി എന്നുള്ളതൊന്ന് പറഞ്ഞ് ആ ഒരു ഇവിടെ വരുന്ന സമയം എത്രയാണെന്നുള്ളതെന്നറിയാന് വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങള്ക്ക് ഒരിടം വരെ പോകണം പോവുന്നിടത്ത് പോവുന്ന വഴിക്ക് ഞങ്ങള്ക്ക് ബാങ്കിലും കയറണം അതുകൊണ്ട് ബാങ്കടച്ചാല് പിന്നവിടെ കയറാന് പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെത്ര മണിക്ക് വരുമെന്നുള്ളത് ഒന്ന് പറയണം അത് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങള് തീരുമാനിക്കാൻ അടുക്കാറായോ അടുക്കാറായെങ്കില് പ്രശ്നമില്ല അല്ലെങ്കില് വരാൻ താമസിക്കുമെങ്കിലൊന്ന് പറയണേ പറഞ്ഞില്ലെങ്കില് അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ്